ഹെലൊ ഹലോ ആ പറയു മിസ്സെ ആ അ അ ആ പെൺകുട്ടികളുടെ അതെങ്ങനെയാണ് മിസ്സെ കൂടുതൽ എത്ര കുട്ടികൾക്കാണ് അ ആ ഹ ലേഡീസ് പെൺകുട്ടികളാണോ പെൺ ആ പെൺ ആ ആ ലേ ആ ഒ അ ഹ ഹ ഹ ആ ഹാ ഇത് ആ ഒരു ജോടി ആ ആ ഒരു ജോഡി തയ്ക്കുന്നതിന് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഹ ആ നമ്മൾ അത് അതാലോചിക്കാം മിസ്സെ ഒരുമിച്ച് ആ ആണല്ലെ ആ ഞങ്ങൾ ഇങ്ങനെ പല സ്കൂളുകളിൽ തയ്ച്ചു കൊടുക്കാറുണ്ട് ആ അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് കുട്ടികൾ കൂടുന്നതിൻ്റെ എണ്ണത്തിന് അനുസരിച്ച് നമുക്ക് അതിനകത്ത് ഡിസ്ക്കൗണ്ട് എന്തെങ്കിലും ചെയ്യാം അ ആ ഹാ ഹ അത് ഏതാണ് ഡ്രെസ്സ് ഏതാണ് പാവാടയും ബ്ലൗസ്സും ആ ഹ ഹ ഹ ആ അത് വൈറ്റ് ആൻഡ് ഒരു ബ്ലൂ ആണോ ആ ഓ ശരി ശരി ശരി ആ ഒ ഓക്കെ ഓക്കെ ആ അതെ അതെ അതെ അത് വേറെ ആൾക്കാരുണ്ട് തയ്ക്കാനായിട്ട് അപ്പം പറഞ്ഞ ടൈമിന് തന്നെ തയ്ച്ച് തന്നോളാം ആ ആ എന്നത്തേക്കാണ് ആവശ്യം വരിക ആണല്ലെ അ അത് ഓക്കെയാണ് അപ്പോൾ അളവും കാര്യങ്ങളുമൊക്കെ കുട്ടികളെ എങ്ങനെയാണ് ഞങ്ങളൊരു ദിവസം സ്കൂളിലോട്ട് വരാമെന്ന് എന്നി്ട്ട അവിടെ വച്ചിട്ട് ആ അങ്ങനെ അ അ ആ അ അപ്പം തുണി എങ്ങനെയാണ് തുണി തരുകയാണല്ലെ ഹ ഹ ആ ശരി ശരി ആ അ അ ഓക്കെ ഓക്കെ അപ്പം അതിന് നമുക്ക് ഒരു ഡേറ്റ് കൊടുക്കും നമ്മൾ അളവ് എടുത്ത് കഴിയുമ്പത്തേക്ക് ഒരു കൊടുക്കും അപ്പം അതനുസരിച്ചിട്ട് അപ്പം കുട്ടികൾക്ക് നമുക്ക് അത് അതൻസരിച്ചിട്ട് അങ്ങനെയായിരിക്കും അതിൻ്റെ പേമെൻ്റും കാര്യങ്ങളും തയ്ച്ചു കൊടുമ്പോഴത്തേക്ക് ആ ടൈമിന് തന്നാൽ മതി ആ അളവെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് പൈസ അഡ്വാൻസ്സ് തരണം ഓക്കെ ഓക്കെ അ ആ പിന്നെ വേറെ അല്ലാതെ വേറെ കുട്ടികൾക്ക് വേണ്ടി അഡിഷണൽ ജോയി വേറെ ഡ്രെസ്സ് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി ആ ഹ ഹ ഹ അ അതിപ്പം ഇങ്ങനെ ഡെയ്ലിയോ ഫുൾ ഡെ അഞ്ച് ദിവസം ഒരേ ഡ്രെസ്സ് തന്നെയാണൊ അതോ വെനസ്ഡെ വേറെ അങ്ങനെ വല്ലതും ഇ വേറെയാണ് അപ്പോൾ അത് അതെങ്ങനെയാണ് തയ്ക്കേണ്ടത് ആ ഹ ഹ ആ ഹ അത് പറഞ്ഞാൽ മതി ഇപ്പം ആ പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ഹ ഹ ശരി ശരി ശരി ശരി ഓക്കെ ഓക്കെ താങ്ക് യു